ഒരാൾക്ക് ഒരുപാട് നന്നായി എഴുതണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു വായനക്കാരനാവണം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഒരു നല്ല എഴുത്തുകാരനാവാൻ സാധിക്കുന്നത് അതില്ലാതെ ഒന്നുമില്ലാതെ വായന ഒന്നുമില്ലാതെ അവനൊരു അവനൊരു എഴുത്തുകാരൻ ആവുക എന്നുള്ളത് പ്രായോഗികമാണ് അവനൊരു പക്ഷേ എഴുതാം പക്ഷേ അവൻ വിചാരിക്കുന്നതിലും എത്രയോ അപ്പുറം അവന് വായനയിലൂടെ എഴുതാൻ സാധിക്കും വായനയാണ് എഴുത്തിനെ മെച്ചപ്പെടുത്തുന്ന ഒന്നാമത്തെ ഘടകം എന്നെ സ്വാധീനിച്ച ഒന്ന് രണ്ട് എഴുത്തുകാരെ പറ്റി പറയാം ഞാൻ മനുഷ്യന് എന്ന മനുഷ്യൻ മനുഷ്യനൊരാമുഖം എന്ന സുഭാഷ്ചന്ദ്രൻ്റെ പുസ്തകത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ സുഭാഷ്ചന്ദ്രൻ്റെ ഒരുപാട് ഒരുപാട് വലിയ ഒരു ആരാധകനാവുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ സുഭാഷ് ചന്ദ്രൻ്റെ ഈ പുസ്തകം കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രൻ്റെ മറ്റു പുസ്തകങ്ങളിലേക്ക് കടക്കുകയുണ്ടായി ഘടികാരം നടക്കുന്ന സമയവും അങ്ങനെ അങ്ങനെയാണ് ഞാൻ സുഭാഷ് ചന്ദ്രൻ്റെ ഒരു രചനകളുടെ പരമ്പര അതായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കറിപ്പുകളുടെ പരമ്പരയെ പറ്റി ഞാൻ കേൾക്കുന്നത് അങ്ങനെ അതിലൂടെ ഒരുപാട് ദാസ് ക്യാപിറ്റൽ പോലെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പിന്നിട്ട നാൾ വഴികൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനകളെ സ്വാധീനിച്ച അദ്ദേഹം എങ്ങനെ ഒരു എഴുത്തുകാരനായി എന്നെല്ലാം മറ്റും പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഓർമ്മക്കുറിപ്പുകൾ എനിക്ക് ലഭിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് അദ്ദേഹം പിന്നിട്ട നാൾ വഴികളിലൂടെയാണ് എൻ്റെ ഞാൻ എഴുതുമ്പോൾ ഞാൻ എങ്ങനെയാവണം അതായത് ഞാൻ ആദ്യം പറഞ്ഞതു പോലെ തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു വായനക്കാരനാവണം ഒരുപാട് വായിച്ചാലാണ് നമുക്ക് ഒരുപാട് വ്യത്യസ്തമായ ചിന്തകൾ ലഭിക്കുന്നത് ചിന്തകളിലൂടെയാണ് നമ്മൾ എഴുത്തുകാരനാവുന്നത് അപ്പോൾ നമ്മൾ രചിക്കും ഒരു രചനയ്ക്ക് അത്യാവശ്യമായ ഒന്നാണ് വായന എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് അതിന് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് നമുക്ക് വ്യത്യസ്ത തരം രചനകൾ കാണാൻ സാധിക്കും ഒന്ന് നമ്മുടെ ബുദ്ധിയിൽ നിന്ന എടുത്ത് എഴുതുന്നതിനും സംഭവങ്ങളെ പറ്റി എഴുതുന്നതിനും അതായത് വാസ്തമായ സംഭവങ്ങളിലേക്ക് പുതിയ കഥാപാത്രങ്ങളെ വച്ചു നമ്മുടെ ചിന്തയിൽ തെളിയുന്ന പുതിയ കഥാപാത്രങ്ങളെ വച്ചു എഴുതുന്ന ഫിക്ഷണൽ നോവലുകളും അതുപോലെ ഒരുപാട് സംഭവങ്ങളെ ആസ്പദമാക്കി ഉള്ള സംഭവങ്ങളെ അതേപടി ഒരു നോവലായും കഥയായും ചരിത്രമായും എഴുതുന്ന രചനകളെല്ലാം കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ രചനകളും അത്യാവശ്യമായി അതായത് കൂടാതെ കഴിയാത്ത ഒരു സാധനമാണ് വായന എന്ന് വായനയിലൂടെ നമുക്ക് ആ ഒരു എഴുത്തുകാരനാവാം എഴുത്തുകാരന് എന്തൊക്കെ സമുദായത്തിൽ ചെയ്യാൻ വഴിക്കും ചെലുത്താൽ സമുദായത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും എന്നത് നമുക്ക് പറയേണ്ട ആവശ്യം കൂടിയില്ലാത്ത ഒന്നാണ് സമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ് അതായത് മറ്റുള്ളവരുടെ മാനസിക സ്ഥിതിയെ മാറ്റാൻ കഴിയുന്ന ഒരു ഘടകമാണ് എഴുത്ത് എന്ന് പറയാം അപ്പോൾ ഒരു ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ രചനങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ഒരു നല്ല വായനക്കാരനാവണം ഒരു നല്ല വായനക്കാരനായിട് നല്ല എഴുത്തുകാരനാവാൻ സാധിക്കൂ